നേരത്തെ ഞാന് എൻ്റെ സ്കൂൾ ജീവിതത്തില് ഡിഗ്രി പഠന സമയത്തൊക്കെ ഞാൻ കവിത എഴുതുമായിരുന്നു എനിക്ക് എൻ്റെ മനസ്സിൽ അന്നേരം തോന്നുന്ന കാര്യങ്ങൾ അത് എത്ര ദുഖകരമായിരുന്നാലും സന്തോഷമാണെങ്കിലും വിഷമകരമാണെങ്കിലും ഒക്കെ ഞാൻ അത് ഡയറിയിലേക്ക് എനിക്ക് കവിത രൂപത്തിൽ ഞാൻ എഴുതാറുണ്ടായിരുന്നു അത് എൻ്റെ മനസ്സിന് വളരെ ആശ്വാസമാണ് അത് ഓരോ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അല്ലെങ്കില് സങ്കടം വരുമ്പോഴോ ആണ് അല്ലെങ്കില് സ്ട്രെസ്സ് ആ ടെൻഷനൊക്കെ ഉണ്ടാകുന്ന അവസരത്തില് ഞാനത് ചെറിയ ചെറിയ കവിതകളാക്കി എഴുതാൻ ശ്രമിക്കുമായിരുന്നു അത് വളരെ ഒരു മാനസികമായ സമ്മർദ്ദം കുറയ്ക്കുന്ന ഒരു പ്രക്രിയ ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അതിലൂടെ എൻ്റെ മനസ്സിൻ്റെ ആ ഒരു ടെൻഷൻ കുറയ്ക്കാന് എനിക്ക് സാധിക്കുമായിരുന്നു കവിതയിലൂടെ നമ്മളുടെ മനസ്സിൽ എന്താണോ അത് തുറന്ന് എഴുതാനും അത് മറ്റൊരാളോട് പറയുന്നതു പോലെ തോന്നാനും ഒക്കെ എന്നെ സഹായിച്ചിരുന്നു അതിലൂടെ എനിക്ക് ഒരുപാട് ഗുണകരമായി തീർന്നിട്ടുണ്ട് എന്ന് എനിക്ക് പിന്നീട് മനസ്സിലായിട്ടുണ്ട് അത് ചെയ്യുന്നതിലൂടെ നമ്മുടെ മാനസിക സമ്മർദ്ദം ഇല്ലാതാകുന്നു നമുക്ക് ഒരു സന്തോഷം ഒര് ഒര് തൃപ്തി മനസ്സിന് കൈവരിക്കുന്നു എന്നാണ് എൻ്റെ അനുഭവം പിന്നീടുള്ള കാലഘട്ടത്തില് അത് കവിതകൾ എഴുതാന് സമയം കിട്ടിയിട്ടില്ല സമയം കുറവുണ്ട് എനിക്ക് അത് തുടരാനായിട്ട് സാധിച്ചിട്ടില്ല എന്നാൽ കവിത എഴുതണമെന്ന് ഞാൻ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട് അതിനൊരു സാഹചര്യവും ഒത്ത് വരുമ്പോള് ഞാന് വീണ്ടും എഴുതാൻ ശ്രമിക്കും ഇപ്പോൾ ഞാൻ നിലവില് കവിതകളൊന്നും എഴുതുന്നില്ല കവിത എഴുതാനുള്ള സാഹചര്യം സമയം ഒക്കെ കിട്ടുന്ന സമയങ്ങളില് എഴുതണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതിലൂടെ നമ്മുടെ മാനസിക നില മെച്ചപ്പെടുത്താനും മനസ്സിൻ്റെ ഒരു നിയന്ത്രണം കാത്തുസൂക്ഷിക്കാനുമൊക്കെ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കവിത എഴുതുന്നതിലൂടെ നമുക്ക് അതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കവിത എന്ന് പറയുന്നത് നമ്മുടെ പല കാര്യങ്ങളുണ്ട് അതില് ഓ ഓരോന്നായിട്ട് എടുത്ത് പറയാൻ സാധിക്കില്ല എങ്കിലും എൻ്റെ ആത്മ നൊമ്പരങ്ങളുടെ ഒരു ബഹിർഗമനമാണ് ശരിക്കും എൻ്റെ കവിതയിൽ ഉടനീളം എന്ന് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് എനിക്കൊരു സംതൃപ്തി തരുന്ന ഘടകം തന്നെയാണ് എന്ന് ഞാന് വിശ്വസിക്കുന്നു